ടൂറിസം വളരെയധികം പ്രായോജനപ്രദമായ ഒന്നാണ് ബിസിനസ്സുകൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് ബിസിനസ്സ് വരുന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെല്ലാം ടൂറിസം വളരെ പ്രയോജനപ്പെടുത്താറുണ്ട് ടൂറിസം വന്നുകഴിഞ്ഞാൽ ആ പ്രദേശംതന്നെ ഏകദേശം മാറും ബിസിനസ്സുകൾ വളരും അങ്ങോട്ട് പുതിയപുതിയ ആൾക്കാരുകൾ താമസിക്കാൻ വരും വിദേശികൾ വരും മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുകൾ വരും അങ്ങനെ അവടെയുള്ള ആ പ്രാദേശിക സ്ഥലങ്ങളെല്ലാം തന്നെ വികസിക്കും അൽപ്പം ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യുകയും സാധാരണ ചെറിയ കടകൾപ്പോലും വലിയ രീതിയിൽ ടൂറിസം വന്നാല് അത് വികസിച്ച് വളരെ വലിയ ഒരു പ്രദേശമായിമാറും നമ്മുടെ ചെറുകിട കർഷകർക്ക് പോലും ഈ ടൂറിസം വളരെ പ്രധാനപ്പെട്ട ചെറിയ തട്ടുകടകൾപോലും ഈ ടൂറിസ്റ്റുകളെക്കൊണ്ട് ജീവിക്കുന്നവരാണ് നല്ല പ്രദേശങ്ങളിൽ നല്ല ടുറിസ്റ്റുകൾ വിദേശികൾ അതൊക്കെ വരുമ്പോൾ നമ്മുടെ ബിസിനസ്സുകളെയെല്ലാം നോർമലായിട്ട് വർദ്ധിപ്പിക്കും വിദേശ സഞ്ചാരികൾ വരുന്നതും മറ്റുസ്ഥലങ്ങളിൽ നിന്നുപോലും അവിടെ താമസിക്കാനായിട്ട് വരുന്നതും ഹോട്ടലുകൾ അങ്ങനെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ടൂറിസം ടൂറിസംകൊണ്ട് നമ്മൾക്ക് ഒത്തിരിയേറെ പ്രയോജനങ്ങളാണ് ബിസിനെസ്സ് മാത്രമല്ല കർഷകർക്കാണെങ്കിലും അല്ലാതെ മറ്റു പ്രദേശങ്ങളിൽ താമസത്തിന് വരുന്നവരാണെങ്കിൽപ്പോലും ബിസിനസ്സുകൾ എല്ലാം എപ്പോഴും ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇപ്പോൾ ഉദാഹരണങ്ങൾ നെയ്യാര് ടൂറിസം എന്തുമാത്രം പദ്ധതികൾ അങ്ങനെ നമ്മളുടെ നാടിന് ഗുണകരമാണ് ഈ ടൂറിസം നമ്മൾ ടൂറിസം വികസിക്കുമ്പോൾ ആ പ്രദേശം മൊത്തവും വികസിക്കുകയാണ് അവിടത്തെ ജനങ്ങളുടെതന്നെ ജീവിത വളർച്ചയെ ഈ ടൂറിസം അവരുടെ ജീവിതത്തെത്തന്നെ മാറ്റിമറിക്കും ഒരുപക്ഷെ കാരണം അത്രയധികം നല്ലതാണ് ടൂറിസം ടൂറിസം എല്ലായിടത്തും വരികയെന്നുള്ളത് ഒരു പ്രത്യേകമാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഏറ്റവും ഭംഗിയാർന്ന ഒന്നാണ് ടൂറിസം കാരണം ഇത് ഓരോ സ്ഥലത്തും ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ചാണ് ബിസിനസ്സുകൾ വലിയ വലിയ ഹോട്ടലുകൾ ചെറിയ ചെറിയ തട്ടുകടകൾ പോലുള്ളവയെല്ലാം വികസിച്ച് വലിയ ഇതായി മാറുന്നത് നമുക്കൊന്നും അങ്ങനെ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് നാട്ടുകാരുടെ വളർച്ചയ്ക്ക് ടൂറിസം വന്നാലൊരു പ്രദേശം മാത്രമല്ല അവർ വരുന്ന വഴികളെല്ലാം ചെറുകിട ആൾക്കാർക്കെല്ലാം വളരെ പ്രായോജനപ്പെടുന്നാണ് വിദേശികളുടെ വരവുതന്നെ നമുക്ക് ഉദാഹരണങ്ങൾ ഒത്തിരിയുണ്ട് ടൂറിസം വന്നതോടെ ആ പ്രദേശം ഒരുപ്രദേശം മൊത്തം തന്നെ വികസിക്കുകയാണ് ഒരാൾ മാത്രമല്ല ബിസിനെസ്സ് മാത്രമല്ല ആ പ്രദേശം തന്നെ മാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക നമ്മുടെ ബിസിനസ്സുകാരെ മാത്രം ആശ്രയിച്ചല്ല ഇവടത്തെ പ്രവാസികൾ മറ്റു പ്രദേശങ്ങളിൽ താമസത്തിന് വരുന്നവർ ഹോട്ടലുകൾ അങ്ങനെ ഫുഡുകൾ ഫുഡ് അങ്ങനെ എല്ലാത്തിനും വളരെ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ വളരുവാൻ ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ല ഒന്നാണ് ടൂറിസ്റ്റ് എല്ലാവരും ടൂറിസ്റ്റ് പ്ലേസിലോട്ട് നീങ്ങിയാണ് ബിസിനസ്സുകൾ ആരംഭിക്കുക ടൂറിസ്റ്റുകളെ ആശ്രയിച്ചാണ് നമ്മൾ ബിസിനെസ്സ് അതുകൊണ്ട് ടൂറിസം വരുന്നതോടുകൂടി ഈയൊരു പ്രദേശമാകെ ഡെവലെപ്പ് ചെയ്യുകയാണ് ബിസിനസ്സുകൾ മാത്രമല്ല അവടെയുള്ള പ്രദേശങ്ങൾ അവിടെയുള്ള വീടുകൾ അവടെയുള്ള ചെറിയ ചെറിയ കടകൾ പെട്ടിക്കടകൾ വലിയ ഹോട്ടലുകൾ അങ്ങനെ ജീവിതത്തിൻ്റെ ശൈലിപോലും ഈ ടൂറിസം വരുമ്പോൾ ജീവിതശൈലികൾ തന്നെ മാറാൻ തുടങ്ങും അങ്ങനെ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ടൂറിസത്തെ കൊണ്ടുവരികയെന്നുള്ളത് ഏറ്റവും അഭിലഷണീയമായ ഒന്നാണ് ഒരു ചെറിയ ഗ്രാമത്തെപ്പോലും വൻ നഗരങ്ങളാക്കി മാറ്റാൻ ടൂറിസത്തിന് കഴിയും കാരണം നമ്മുടെ കടകളൊക്കെ വികസിക്കും അവരുടെ ജീവിത നിലവാരം വർദ്ധിക്കും അവടത്തെ ആളുകളുടെ ജീവിതശൈലി വർദ്ധിക്കും ഇങ്ങനെയെല്ലാം കൊണ്ടും ടൂറിസം പ്രാദേശിക ബിസിനസ്സുകളെയും സ്ഥലത്തേയുംതന്നെ മാറ്റിമറിക്കുകയാണ്